ഹലോ ഇത് മൈ ജി മൊബൈൽ ഷോപ്പല്ലേ ഞാനൊരു ഫോണെടുക്കാന് വേണ്ടിയിട്ടായിരുന്നു മാമ്പുഴക്കരിയിൽ നിന്നാണ് വിളിക്കുന്നത്

നമുക്ക് ഇ ഐ ക്യു ബി സിക്സ്റ്റി ഫോറ് വർത്ത് ആണോ ബി സിക്സ്റ്റി ഫോറ് സ്റ്റോക്കില്ലേ അപ്പോൾ സാംസങ്ങിൻ്റെ മറ്റേ ഏതേലും ഏ ഫോട്ടി വല്ലതും ഉണ്ടോ നമുക്ക് സാംസങ്ങിന് നമുക്കിപ്പം ഇങ്ങനെ ഇപ്പോൾ ഇത് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള കുട്ടികൾക്ക് ഇത് ഇങ്ങനെ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പം പിള്ളേർക്ക് പഠനാവശ്യത്തിനായിട്ട് ഫോൺ കൊടുക്കാനായിരുന്നു അപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാന് പറ്റിയ പെട്ടന്നൊന്നും പോകാത്ത ആ ബൾക്ക് എടുക്കാന് ആവുകയുള്ള് ഒരൂ പതിനഞ്ച് ഫോണോളം നമുക്ക് വേണം നമുക്കൊരു പയിനെട്ട് ടൂ ഇരുപത് ആ ഇരുപതിനുള്ളിൽ നിൽക്കണം ആ പ്രൈസ് റേഞ്ച് ആണ് നമ്മളുദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള നല്ല ഫോൺസ് അപ്പോൾ അതിൻ്റെ പ്രോസസറൊക്കെ എങ്ങനെ ആയിരിക്കും കാരണം നമുക്ക് അതിപ്പോൾ ഇത് നമ്മുടെ ഒരു കുട്ടികൾക്കിപ്പം പഠിക്കാനായിട്ടാണ് അപ്പം നമുക്ക് ആ ഒരിത് ഒര് ഒന്ന് മൂന്നാല് വർഷത്തേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയാൽ മതി അത്പോലുള്ള ഫോണാണ് നമ്മള് നോക്കുന്നത് അത്യാവശ്യം യൂസ് ഏ ഹലോ ആ അതെ അതെ അതെ ഓക്കെ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റൊക്കെ മറ്റേ കാർഡ് ഒന്നും നമുക്കില്ല നമുക്ക് ഒക്കെ പൈസ നമ്മുടെ കയിലുണ്ട് നമുക്ക് ആ ആ ഒര് ബഡ്ജറ്റ് പറഞ്ഞില്ലേ ഇരുപത് ആ ഓക്കെ ഓക്കെ അപ്പം ഞാന് ഇപ്പോൾ എന്നത്തേയ്ക്കവിടെ സ്റ്റോക്ക് കാണും ആ ഓക്കെ എങ്കിൽ പിന്നെ അമ്മ് ഞാനൊരു മൂന്നാം തിയതിയിലേക്ക് നമുക്ക് വരാം ആ ഓക്കെ താങ്ക്യു